നമ്മള് ബാല്യം കൗമാരം യൗവനം എന്ന് പറയും അതുപോലെ കുഞ്ഞ് നമ്മൾ എപ്പം എത്ര പ്രായമായാലും എന്നും നമ്മൾ ചെറുപ്പകാലത്തിൻ്റെ ആ ഓർമ്മകൾ അതെന്നും നമുക്ക് ഒരു പുത്തൻ അനുഭൂതിയാണ് തരുന്നത് ഒരു കഷ്ടപ്പാട് കൊണ്ട് ഒരു വീട് പോലും പുല്ല് മേഞ്ഞ വീട്ടിൽ നിന്നും കുറേ കുട്ടികൾ അഞ്ചോ ആറോ ചിലപ്പോൾ പത്ത് വരെ മക്കളുണ്ടാവും മുമ്പത്തെ കാലത്ത് എങ്ങനെയുള്ള ആ ചെറിയൊരു ഒരു റൂമിൽ റൂം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ റൂം എന്ന് ഇന്നത്തെ കാലത്ത് അത് തന്നെ റൂം എന്ന് പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ചെറിയ ചോപ്പടി എന്ന് പറയാം അങ്ങനത്തെ ഒരു റൂമീൽ ഈ അച്ഛനും അമ്മയും അഞ്ചാറ് കുട്ടികളും ഒന്നിച്ച് വളർ ജീവിച്ച് വളർന്ന് വലുതായി നമ്മളെ പഠിപ്പ് പഠിപ്പു എഡ്യു എല്ലാം ആയി കല്യാണമായി മക്കളായി മക്കളെ കല്യാണമായി എല്ലാം കഴിഞ്ഞിട്ട് ഇന്ന് നമ്മളിത്ര പ്രായമായിട്ട് എല്ലാം സുഖവും ഇന്ന് അനുഭവിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ആ പഴയ കാല ഓർമ്മകൾ ഒരിക്കലും മറക്കാനാവില്ല എന്തെന്ന് പറഞ്ഞാൽ ആ ആ ജീവിതം അതൊരു വ്യത്യാസമായ ജീവിതമാണ് ഇന്ന് വ് വിജ്ഞാ വൈജ്ഞാനികമായിട്ട് ലോകം ഒരുപാട് മുമ്പോട്ട് പോയാലും നമ്മൾ ആ ഒരു ചെറിയ വീട്ടിൽ ലൈറ്റ് പോലുമില്ലാണ്ട് ചിമ്മിണി കൂട് കത്തിച്ചിട്ട് ആ ഇരുട്ട് മുറിയിൽ ചിമ്മിണി തന്നെ ഉണ്ടാവില്ല ചിമ്മിണി കൂടി ഒരു ചിമ്മിണി കത്തിച്ചിട്ട് ആ വെളിച്ചത്തിലാണ് വളർന്നിട്ട് ഒരു റൂമിൽ ആ ചിമ്മിണി വെച്ചിട്ട് അതിനു ചുറ്റും നമ്മളിരുന്നിട്ട് ചോറ് വയ്ക്കും പഠിക്കുന്നതെല്ലാം അങ്ങനെയാണ് അതാണ് ചെറുപ്പ കാല ജീവിതം പൺ മുമ്പത്തെ ആ ഓർമ്മകൾ നമുക്കെന്നും ഒരു നല്ലൊരു അനുഭൂതിയായി മാറുന്നുണ്ടെന്ന് ഇപ്പോൾ നമുക്കെല്ലാ സൗകര്യങ്ങളും ദൈവം എല്ലാ നന്മകളും തന്നിട്ടുണ്ടായാലും നമ്മളെ അച്ഛൻ നമ്മളെ അമ്മ നമ്മളെ കുടുംബം നമ്മളെ കൂടപ്പിറപ്പെന്ന് പറയുന്ന ആ ഓർമ്മകൾ അത് നമുക്കൊരു വല്ലാത്ത അനുഭൂതിയാണ് തരുന്നത് ഇന്ന് നമ്മൾ അവരെ ഓർക്കുമ്പോളേക്ക് തന്നെ നമുക്ക് എന്തോ ഒരു സുഖം ഇപ്പോൾ ലോകം ഒത്തിരി മുമ്പോട്ട് പോയിട്ട് എല്ലാ എല്ലാ ആനുകൂല്യങ്ങൾ കിട്ടിയാലും ആ മുമ്പത്തെ കഷ്ടപ്പാടിന്റെ ആ ഒരു ഓർമ്മ നമുക്ക് ഇപ്പം വല്ലാത്തൊരു എന്തെങ്കിലും ഒരു എന്തെങ്കിലും സ്വരച്ചേർച്ച എന്തെങ്കിലും മാനസികപ്രശ്നം വരുമ്പോൾ നമുക്ക് നമ്മളെ വീട് നമ്മളെ അച്ഛനും അമ്മയും നമ്മളെ ചെറുപ്പത്തിൽ എങ്ങനെ വളർന്നു അതെല്ലാം ഇങ്ങനെ ഓർക്കുമ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷം വല്ലാത്തൊരു ജീവിതം അപ്പം നമ്മള ഈ വിഷമം പോയി വിഷമത്തിന് പ്രായശ്ചിത്തമായിട്ട് ആ ഓർമ്മകൾ മതി ആ ഒർമ്മകൾ കിട്ടുമ്പം ഇതെല്ലാം മറന്ന് പോകുന്നു ആ ചെറുപ്പത്തിൽ അടികൂടും നമ്മൾ ഏച്ചി അനിയത്തി എല്ലാരും അനിയന് എല്ലാവരും ഒന്നിച്ചിരിക്കുമ്പോളൊക്കെ വെറുതേലും അവന് പുതിയ ഉടുപ്പ് വാങ്ങി കൊടുത്താലും നമുക്ക് വാങ്ങി തരാൻ വീട്ടിൽ പണം ഉണ്ടാവില്ല എല്ലാം ഇപ്പം ഒരു ആറ് കുട്ടികളുണ്ടെങ്കിൽ ആറ് കുട്ടികൾക്കും വാങ്ങാനുണ്ടാവില്ല സ്കൂളിലോക്കെ പോകുമ്പോൾ പുസ്തകം വാങ്ങിയാൽ പെൻസിൽ വാങ്ങാൻ പൈസ ഉണ്ടാവില്ല അത്രക്കെല്ലാം കഷ്ടപ്പെട്ട് പെടുമ്പളേക്കും ഏത് അനിയനോട് പെൻസിൽ വാങ്ങുമ്പോൾ ഓൻ കലമ്പും അനക്ക് പെൻസിൽ തന്നിക്ക് തന്നിട്ടില്ലെങ്കിൽ ഞാൻ സ്കൂളിലേക്ക് പോകില്ല എന്ന് ആ അപ്പം ഏച്ചി പറയും എനിക്ക് കംപോസ് ബോക്സ് ഇല്ലെങ്കിൽ ഞാൻ പോവില്ല പിന്നെ ചെ ഞാനാണെങ്കിലുണ്ടോ ആ നമുക്ക് പ്രശ്നവില്ല ആരുദോങ്കി സഹായത്തിന് വാങ്ങിയിട്ടങ്ങ് പോയിട്ട് പഠിച്ച് വരാം അങ്ങനെ വിചാരിക്കും അങ്ങനെ പോയിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് വളർന്നിട്ടാണ് നമ്മളെല്ലാം ഇപ്പോൾ ഈ നിലയ്ക്ക് എത്തിയത് അപ്പം അത് വിചാരിക്കുമ്പോൾ നമ്മളെ അച്ഛനും അമ്മയും നമ്മളെ വലുതാക്കാൻ വേണ്ടിയിട്ട് എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടോ എത്ര പാടുപെട്ടിട്ടുണ്ടോ ഇന്ന് സർക്കാർ ജോലിയൊന്നുമില്ലല്ലോ മുമ്പത്തെ കാലത്ത് ഒരുപാട് പാടത്ത് പറമ്പത്ത് ജോലിയെടുത്തിട്ട് അപ്പം ചെറിയ തുല്യ വേതനമല്ലേ കിട്ടൂ ചെറിയ ശമ്പളത്തിന് വേണ്ടിയിട്ടല്ലേ അധ്വാനിച്ചിട്ട് പണം ഉണ്ടാക്കിയിട്ട് ഇത്ര കുട്ടികൾക്ക് ഭക്ഷണത്തിന് വേണ്ടേ ഒരു നല്ല ഉടുപ്പിടാൻ വേണ്ടേ ഇതിനെല്ലാം പൈസ തികയുമോ ആ അച്ഛനും അമ്മയും ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ കണ്ടിട്ടേ ഉണ്ടാവില്ല ചെറുപ്പ കാലത്തിൻ്റെ ആ ഓർമ്മകൾ ഇപ്പോൾ എന്തായാലും ആ ഓർക്കുമ്പോഴേക്ക് നമുക്ക് വല്ലാത്തൊരു നമ്മളെ അച്ഛനും അമ്മയും ആരാണെന്ന് ഇപ്പോഴാണ് നമുക്ക് തോന്നുന്നത് അത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളെ എല്ലാം വലുതാക്കുന്നത് ഇപ്പോൾ ആണെങ്കിൽ എല്ലാ സൗകര്യങ്ങളും പണം മാത്രമേ വേണ്ടൂ എല്ലാ സൗകര്യങ്ങളും മനുഷ്യനൂണ്ടാണ് മുമ്പാണെങ്കിൽ കഷ്ടപ്പെട്ട് അടുക്കളയിൽ ജോലി ചെയ്ത് കത്തിക്കാനില്ലാണ്ട് പുക പുക ഇങ്ങനെ കണ്ണിൽ ഇതാവും അങ്ങനെ ഇതാക്കി ചപ്പ് പച്ച ചപ്പെല്ലാം ഇട്ട് കത്തിച്ചിട്ടാണ് ഭക്ഷണമുണ്ടാക്കുന്നത് ഇപ്പോൾ കാലം ഒരുപാട് മാറിയില്ലേ എന്ത് വേണമെങ്കിലും റെഡി ഇൻസ്റ്റൻറ്റ് നിമിഷ നേരത്തിൽ വന്നെത്തും എന്ത് സാധനം വേണമെങ്കിലും പണം ഉണ്ടെങ്കിൽ നമുക്ക് ആ നമ്മളെ പഴയ കാല ഓർമ്മകളിൽ നിന്നും പിന്തിരിയാൻ ഒരിക്കലും ആകില്ല നമ്മളെ ഇന്ന് ഈ മുമ്പോട്ട് നയിക്കുന്നത് എല്ലാം നമ്മൾ ചുറ്റുപാടും നമ്മൾ ജീവിച്ച ആ ജീവിത ശൈലിയും നമ്മൾ ഇന്ന് ജീവിക്കുന്നത് നമ്മളെ അച്ഛനും അമ്മയും നമുക്ക് പറഞ്ഞു തന്ന ആ ഒരു ഇതിൽ മാത്രമാണ് അതാണ് നമ്മൾ ഇന്നും കൊണ്ട് നടക്കുന്നത് അച്ഛനും അമ്മയും നമുക്ക് ആദ്യ പാഠം പറഞ്ഞ് തരും പഠിപ്പിക്കുന്ന ആ വീടാണ് എല്ലാത്തിനും കാരണം നമ്മൾ വളർന്ന നമ്മളെ ചുറ്റുപാട് അതാണ് നമുക്ക് മുമ്പോട്ട് ഇപ്പോളും നമ്മളെ ശൈലി എന്ന് പറയുന്നത് നമ്മള അച്ഛനും അമ്മയും നമ്മളെ എങ്ങനെ വളർത്തി എങ്ങനെ നോക്കി എങ്ങനെ വലുതാക്കി നമുക്ക് തന്ന എഡ്യൂക്കേഷൻ എന്ത് നമുക്ക് എന്തെല്ലാം നന്മകൾ പറഞ്ഞ് തന്നു അതെല്ലാമാണ് ആ അതാണ് നമുക്കിന്ന് എത്ര നമ്മൾ എത്ര കഷ്ടത്തിലുണ്ട് എത്ര നല്ലതിലുണ്ടങ്കിലും എന്ത് നമ്മളനുഭവിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ഇന്നും ഓർമ്മകളിൻറെ നമ്മളെ അച്ഛന് നമ്മളെ അമ്മ നമ്മളെ കൂടെപ്പിറപ്പ് നമ്മളെ ആ ചെറിയ ഒരു വീട്ടിൽ നിന്നും നമ്മൾ ഉയർന്ന് വന്നത് ആ ഒന്നിച്ച് ഒരു പായയിൽ അപ്പം കട്ട് ഒരു കീറിയ പായയിൽ കിടന്നിട്ട് കുളിരുമ്പോൾ ഒക്കെ എല്ലാം മഴക്ക് നല്ല മഴ വരുമ്പോൾ കുളിർന്ന് വിറയ്ക്കും അപ്പോൾ ഒരു ഒരു ബെഡ്ഷീറ്റ് പോലും ഉണ്ടാവില്ല ഒരു മുഷിഞ്ഞ തുണി കീറിയ തുണിയും പുതച്ച് ഇങ്ങനെ കിടക്കും ആ ഓർമ്മ ഇന്നും നമ്മൾ നല്ല കട്ടിലിൽ നല്ല ബെഡും ഇട്ട് ഇത്തിരി കിടക്കുമ്പോൾ ആ ഓർമ്മകൾ ഇങ്ങനെ തേക്കി വരും എന്നാലും നമ്മൾ ദൈവം നമുക്ക് ഇന്നിപ്പം ഇതറയും സുഖം തന്നല്ലോ അതിന് നമ്മൾ ഇത്രയും നമ്മൾ നോക്കിയിട്ട് നമ്മൾ ഇത്രയ്ക്കും ആക്കിയ നമ്മളെ അച്ഛനും അമ്മയ്ക്കും എന്നും കടപ്പാടാണ് നമ്മളെ അച്ഛനും അമ്മയും ആണ് എല്ലാ സർവ്വവും അവരാണ് നമ്മളെ ഇത്രയും വിദ്യാഭ്യാസം എല്ലാം തന്നിട്ട് നമ്മളെ ഈ നിലയ്ക്ക് എത്തിച്ചതും എല്ലാം അതേപോലെയാണ് കൂടെയുള്ള കൂടപ്പിറപ്പുകളും ഏച്ചിമാരും അനിയന്മാർ വീട്ടുകാർ കുടുംബക്കാർ എല്ലാവരും ഒന്നിച്ചിട്ടുള്ള ഒരു നല്ല ദിവസം ഓണം വിഷുവെല്ലാം വരുമ്പം വന്നാൽ ഒരു വീട്ടിൽ അന്നെല്ലാവരും സദ്യ ഉണ്ടാവണമെങ്കിൽ ഓണം വിഷു എല്ലാം വരണം ഇന്നാണെങ്കിൽ ഇപ്പം വേണമെങ്കിൽ ഏത് നിമിഷം വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ കൊണ്ടുവന്ന് തിന്നാം അന്നെല്ലാം ഒരു കോഴിക്കറി കിട്ടണമെങ്കിൽ ഒരു ഓണം വിഷൂവിന് വേണ്ടി കാത്ത് നിൽക്കണം അത് അപ്പം ഈ അടുപ്പ് കത്തിച്ചിട്ട് ഉണ്ടാക്കുന്ന സ്റ്റൈൽ എല്ലാം വീട്ടുകാരെല്ലാം ഒന്നിച്ച് ചേർന്ന് ഉണ്ടാക്കുന്ന അതെല്ലാം കാണാനും അത് ആ കറി ഉണ്ടാക്കുമ്പോൾ എല്ലാം വരുന്ന സ് മണം എന്ത് നല്ല മണവും നല്ല ടേസ്റ്റും ഇന്നിത്ര എന്ത് ഇട്ടിട്ടും എന്ത് സാധനം ഇട്ടിട്ട് ഉണ്ടാക്കിയാലും ഒരു ടേസ്റ്റും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അത് നമ്മളെ അച്ഛനും നമ്മളെ അമ്മയുടെ കൈപ്പുണ്യം എന്ന് പറയും ആ വയസ്സായ നമ്മളെ അച്ഛനമ്മമാർ ആ കൈപ്പുണ്യവും ആ ഒത്തൊരുമയും ആ ഒന്നിച്ചുള്ള ജീവിതവും അത് എന്ന് ഒരു എല്ലാരിക്കും ഒരു നല്ലൊരു ഓർമ്മയും ജീവിതം മുമോ മുന്നോട്ട് നയിക്കുന്നതുതന്നെ ആ ഓർമ്മകൾ തന്നെയാണ് ഞാൻ പറയുന്നെങ്കിൽ നമ്മളെ എല്ലാ നന്മയിലും തിന്മയിലും നമ്മൾ ജനിച്ച് വളർന്നിട്ട് നമ്മളെ ചുറ്റുപാട് നമ്മളെ അച്ഛനും അമ്മയും നമ്മളെ വലുതാക്കി അത് ആ ഓർമ്മ ആ അത് മാത്രമാണ് നമുക്ക് ഇന്നും നമ്മളിപ്പോൾ എന്ത് അനുഭവിക്കുന്നു എന്ത് നമ്മൾ ജീവിത ശൈലി എന്തുണ്ടെങ്കിലും അത് അച്ഛനും അമ്മയുടെയിൽ നിന്ന് വന്ന അത് തന്നെയാണ് ഇന്നും ആ അച്ഛനും അമ്മയും നമ്മളെ എങ്ങനെ നോക്കി ഇത് ആ കൂടപ്പിറപ്പും ആ ബന്ധവും ഇന്നും ആ ഓർമ്മകളെന്നും ഒരു പുത്തൻപോലെ മനസ്സിലുണ്ട്